ഹലോ ആ രുചി തട്ടു കടയല്ലേ ആ ഞാന് ഇവിടെ നിന്ന് പുല്പറ്റയിൽ നിന്നാണ് നമ്മൾക്ക് കുറച്ച് പിന്നെ ഭക്ഷണം വേണ്ടിയിരുന്നു ഒരു പത്ത് പന്ത്രണ്ടു മണിയാകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് ആ മന്തി അല്ലേ മന്തി വേണ്ട എന്നാൽ പിന്നെ ബിരിയാണി ഉണ്ടോ ബീഫ് ബിരിയാണി ഉണ്ടോ ആ എന്നാൽ ബിരിയാണി ആയിക്കോട്ടെ അപ്പോൾ ഒരു പന്ത്രണ്ടു മണിയാവുമ്പോൾ ഞങ്ങൾക്ക് ഒരു പത്തിരുപത് ആള്ക്കാർക്കുള്ള ബീഫ് ബിരിയാണി വേണം കിട്ടില്ലേ പന്ത്രണ്ടു മണിയാവുമ്പോൾ വേണം അവിടെ നിന്ന് നേരം വൈകിയാൽ പറ്റില്ല പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് തരുമോ ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ പന്ത്രണ്ടു മണിയാകുമ്പോൾ ഞാന് വേറെ എവിടെയും ഓര്ഡര് ചെയ്യുന്നില്ല കേട്ടോ എന്നാൽ കൊണ്ടു വരൂ അതിലേക്ക് സലാഡും ഒരു നാല് പെപ്സിയൊക്കെ വേണം എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യും എന്നാൽ ശരി ഓക്കേ